യുദ്ധങ്ങൾ മൂലം പല സ്ഥലങ്ങളിലും കുടിയേറി പാർക്കുന്നവരെ എനിക്കറിയില്ല എന്നാലും നമ്മളും ടി വിയിൽ കൂടെ ഇപ്പം ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധങ്ങളെക്കുറിച്ച് നമ്മള് ടി വിയിൽ കാണുകയും പത്രങ്ങളിൽ വാർത്ത കേൾക്കുകയെല്ലാം ചെയ്യുന്നു പിന്നെ അതുപോലെ തന്നെ അവർ നേരിടുന്ന വെല്ലുവിളികളെന്ന് പറഞ്ഞാൽ അവർക്ക് കഴിക്കാനുള്ള വസ് കഴിക്കാനുള്ള വസ്ത്ര കഴിക്കാനുള്ള ആഹാരമില്ല നല്ല വസ്ത്രമില്ല കുടിക്കാനുള്ള വെള്ളമില്ല അവർക്ക് താമസ സൗകര്യങ്ങളില്ല ഗർഭിണികൾക്കതനുസരിച്ചുള്ള മരുന്നുകൾ കിട്ടുന്നില്ല കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള മരുന്നുകൾ കിട്ടുന്നില്ല ആഹാരം കിട്ടുന്നില്ല താമസസൗകര്യങ്ങളില്ല അപ്പം അവർ പല രീതിയിലും ഉള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ട് പിന്നെ യുദ്ധം അത് നമ്മളെ എല്ലാം നമ്മൾ കാണു കാണുന്ന ഒരു അവസ്ഥയിലല്ലേ നമ്മൾ ഇതെല്ലാം കാണുന്നുൻ പിന്നെ വാർത്തകൾ മുഖാന്തരം കേൾക്കുന്നുണ്ട് അത് ഒക്കെ തന്നെ അവർ നേരിടുന്നൊരു വെല്ലുവിളികൽ ആയിട്ടല്ലേ നമ്മൾ കാണുന്നത് പാലസ്തീൻകാരും ഇന്ത്യകാരും എല്ലാവരും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഇത് കാണുകയല്ലേ ചെയ്യുന്നത്